ഞങ്ങളുടെ സ്കൂളിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു വലിയ ഒരു പ്രോജക്റ്റ് വർക്ക് നടക്കുകയായിരുന്നു അപ്പം പിന്നെ ഇത്ര ബോണ്ട് പേപ്പറ് വേണം എന്ന് പറഞ്ഞ് ഞാൻ ആണെങ്കിൽ മുപ്പത് ബോണ്ട് പേപ്പറേ മേടിച്ചുള്ളൂ കൂട്ടുകാർ പറയുകയാ വേണമെങ്കിൽ ഇനിയും മേടിച്ചോ ഇനി നമുക്ക് സ്കൂളിന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓ വേണ്ട ഇത്രയും ബോണ്ട് പേപ്പറ് മതി ഞാനായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ലീഡറ് ഇത്രയും ബോണ്ട് പേപ്പറ് മതി നമുക്ക് ഒന്നാമത് ഇതില്ല ക്യാഷ് അത്രയും ഇല്ല ഇത്രയും ബോണ്ട് പേപ്പറ് മതി സ്കെച്ച് ഒക്കെ മേടിച്ച് അപ്പം പറഞ്ഞു വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല ഇത്രയും ഒക്കെ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് ബോണ്ട് പേപ്പറ് തികഞ്ഞും ഇല്ല പിന്നിട് ആണെങ്കിൽ നമ്മുടെ ഇത് അതിനെ ഡിസൈൻ ചെയ്യാനുള്ള പല സംഭവങ്ങളും മേടിച്ചില്ല അതെല്ലാം മറന്നായിരുന്നു അപ്പോഴത്തേനും പ്രോജക്റ്റ് വർക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പം ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സർടിഫൈ ചെയ്തില്ല സർടിഫൈ ചെയ്യാതിരുന്നപ്പം കൂട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടും ഇല്ല അല്ല പിന്നെയാണെങ്കിൽ അവർ അവർ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ഇതിൽനിന്ന് ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ആവശ്യം അതിൽ കൂടുതൽ നമ്മൾ കരുതിവെക്കുകയും പിന്നാണേല് ആ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനൊരു മനസ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതി മാറ്റണം എന്നാണ് ഇതിൽനിന്ന് എനിക്ക് തോന്നിയത്